ഹലോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് മീൽസാണ് മാഡത്തിന് എന്താണ് വേണ്ടത് ആ ഓക്കേ മാം നമ്മള് ഫുഡിൽ മെയിനായിട്ട് ഏരിയയെന്നത് മീൽസ് തന്നെയാണ് മീൽസും ഫിഷ്ഫ്രൈയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ ചിക്കൻ ബിരിയാണി വരുന്നുണ്ട് മട്ടൻബിരിയാണി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ബിരിയാണി ഐറ്റംസ് പിന്നെ മന്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ആ മന്തി അങ്ങനെയൊക്കെയുണ്ട് മാം ഫ്രീയാണോ നമുക്ക് മെയിനായിട്ട് ട്രഡീഷണൽ വരുന്നത് മീൽസ് തന്നെയാണ് മാഡം എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് കഴിക്കാനാണോ അതോ പുറത്ത് നിന്ന് കഴിക്കാനാണോ ശേ പുറത്തു കൊണ്ടുപോകാനാണോ പാഴ്സൽ കൊണ്ടുപോകാനാണോ

ആ ഓൺലൈൻ വേണേൽ നമുക്ക് ചെയ്യാൻപറ്റും ഡെലിവറിയുണ്ട് ആ ഓക്കേ എത്ര പേർക്കുള്ള ഫുഡാണ് നാലുപേർക്കോ ആ ഓക്കേ ഓക്കേ സ്ഥലം എവിടെയാണ് മാഡം ആ ഓക്കേ ഓക്കേ അഡ്രസ് എനിക്ക് കുറച്ചുകഴിയുമ്പോൾ വിളിച്ചിട്ട് കൺഫേമാക്കിയിട്ട് ഒന്നു കൺഫേം ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഓർഡറൊന്നു കൺഫേം ചെയ്യാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി ആ ഓക്കേ നാലുപേർക്കുള്ളതല്ലേ നമുക്ക് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ചെയ്യാം പിന്നെ മന്തി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്താ വേണ്ടത് അൽഫം മന്തിയൊക്കെയുണ്ട് ആ രണ്ടെണ്ണം അല്ലേ അപ്പൊൾ നാല് മീൽസും പിന്നേ രണ്ടു ആ ഓക്കേ ഓക്കേ ഓ വേറെ നമുക്ക് സലാഡോ അങ്ങനെന്തെങ്കിലും വെക്കണോ അതിൻ്റെ കൂടെ ആ ഓക്കേ പിന്നേ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെന്തെങ്കിലും ആവശ്യമുണ്ടാകുമൊ ആ ഐസ്ക്രീം നമുക്ക് സ്കൂപ്പാണോ അതോ അല്ലാത്ത ഇതാണോ വേണ്ടത് കപ്പ് ആ സ്കൂപ് ഓക്കേ ഏതാ വാനില ചോക്ലേറ്റ് അങ്ങനെന്തെങ്കിലും ഫ്ലേവർ ആ സ്ട്രൗബെറിയുണ്ട് ആ ആ ഓക്കേ ഒക്കെ ആ ശരി മാം